ആ നമസ്കാരം

ആ നല്ല സ്ഥലം ആണല്ലോ എപ്പോഴൊക്കെയാണ് നിങ്ങൾ പോകുന്നത് ഇപ്പോൾ പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇപ്പോൾ മൺസൂൺ കാലാവസ്ഥ ഒക്കെയാണ് മഴയും നല്ല ഹിൽ സ്റ്റേഷൻ നല്ല ക്ലൈമറ്റാണിപ്പോൾ പോവുകയാണെങ്കിൽ ആ ഇപ്പോൾ ഇപ്പോൽ നല്ലൊരു കോടമഞ്ഞും കാര്യമൊക്കെ ഉണ്ടാവും ആ പരുപാടിയൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ആ നമുക്ക് ആ നിങ്ങൾ ഒരു സമയം പറയുകയാണെങ്കിൽ നമുക്ക് വണ്ടി അറേഞ്ച് ചെയ്യാം നമുക്ക് വണ്ടി എടുത്ത് പോവാം ആ എട്ട് പത്ത് പേരില്ലേ അപ്പം നമുക്ക് കാർ ഒരെണ്ണം മതിയാവില്ലല്ലോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ട്രാവലർ എന്തെങ്കിലും ബുക്ക് ചെയ്യാം

അതിപ്പോൾ നമുക്ക് ഒരു നടക്കുകയാണെങ്കിൽ ഒരു നാലഞ്ച് മണിക്കൂർ നമുക്ക് കയറി പോകേണ്ടി വരും പിന്നെ നമ്മൾ ആൾക്കാരുടെയൊക്കെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും ഇപ്പോൾ വയ്യാത്ത പെട്ടെന്നു ക്ഷീണിക്കുകയാണെങ്കിലൊക്കെ റെസ്റ്റെടുത്ത് പോകണ്ടേ

ഇറങ്ങിയാൽ നമുക്ക് പെട്ടെന്ന് ഇറങ്ങിവരാൻ പറ്റുമല്ലോ ഇറക്കവും ആയതുകൊണ്ട് പെട്ടെന്ന്